ഇന്ത്യയിലെ ഒരു ഭാഷയാണ് മലയാള ഭാഷ മലയാള ഭാഷ കേരളത്തിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോള് മലയാള കേരളത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അതിനാൽത്തന്നെ ഇന്ത്യയുമായി മലയാളഭാഷ ബന്ധപ്പെട്ടു കിടക്കുന്നു ഇന്ത്യയിലെവിടെപ്പോയാലും ഏതേലും മൂലയില് ഒരു മലയാളി കാണും ഇന്ത്യയിലേത് സംസ്ഥാനങ്ങളെടുത്താലും അവിടെ മലയാളികളെ നമുക്ക് കാണാന് പറ്റും പഠനാവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുട്ടികൾ ജോലിയായിട്ട് ജോലിയുടെ ആവശ്യത്തിനായി പോയേക്കുന്ന കുട്ടി കുട്ടികൾ യുവജനങ്ങൾ കുടുംബങ്ങളവിടെപ്പോയി സെറ്റിലായിരിക്കുന്ന മലയാളി ഫാമിലീസ് അങ്ങനെ നോക്കുവാണങ്കിൽ മലയാളിത്തനിമ കേരളത്തിന്റെ പല സംസ്ഥാനങ്ങളിലും സോറി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മലയാളം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇന്ത്യയിൽ മുറിച്ചുകളയാൻ പറ്റാത്ത ഒരു ഭാഷയായി മലയാളം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഇന്ത്യയിൽ കുറേയധികം ഭാഷകളുണ്ട് വ്യത്യസ്തമായ ഭാഷകളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ച് ചെറിയ ഇന്ത്യ എന്ന് പറയുന്നത് അതിൽത്തന്നെ മലയാളത്തിന് വലിയൊരു സ്ഥാനമാണുള്ളത് മലയാളത്തില് തന്നെ പല പലതരം മലയാളഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് ആലപ്പുഴയിലുപയോഗിക്കുന്ന സ്ലാഗല്ല തിരുവനന്തപുരത്തുപയോഗിക്കുന്നത് തിരുവനന്തപുരത്തുപയോഗിക്കുന്ന സ്ലാഗല്ല തൃശൂരുപയോഗിക്കുന്നത് അങ്ങനെ പല പല സ്ലാഗുകളാലും പല വേറിട്ട വേറിട്ടൊരു ഭാഷയായിട്ടെന്നും മലയാളം ഇന്ത്യയിലെ ജനങ്ങളുടെ ജനങ്ങുടെ മനസ്സിലൊരു സ്ഥാനം നേടിയിട്ടുള്ളൊരു ഭാഷയാണ്